കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് പരീക്ഷി പരീക്ഷിക്കാവുന്ന പ്രാദേശികമായ യാഥാർത്ഥ രൂപങ്ങൾ ഏതൊക്കെയാണെന്നുവെന്ന് തെരുവ് അല്ല മീൻസ് സ്ട്രീറ്റിലെ എല്ലാ പ്രോഗ്രാം ചെയ്യുക ഡാൻസ് അല്ലെങ്കിൽ വല്ല വയലിൻ അങ്ങനെ ഉള്ളത് ചെയ്യാം പ്രാദേശിക ഉത്സവങ്ങളിൽ ഉത്സവങ്ങളിലും ഡാൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു കാരണം പ്രാദേശിക ഇല്ലെങ്കിൽ ഉത്സവങ്ങൾ പറയുമ്പോൾ അതിൽ നമ്മുടെ ആചാരങ്ങളാണ് ഉള്ളത് കൂടുതലായിട്ട് ഇനിയുള്ളത് തെയ്യം തെയ്യം ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ് കാരണം അതിന് അതിൻറ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതിന് എടുക്കണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വൃതം ട്ടാണ് അവർ ആ വേഷം കെട്ടുന്നത് തെയ്യം സോ അത് പറ്റില്ല മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൻ പഠിച്ച് വെച്ചാൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും വിദേശികൾക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തിരുവാതിര പഠിച്ചാൽ ചെയ്യാൻ പറ്റും പിന്നത് തിരുവാതിര പറയുന്നത് ഒരു തീം വർ ടീം വർക്കാണ് ഇപ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും ഒരേപോലെ കോർഡിനേറ്റർ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിക്ക് വന്നാൽ മാത്രമേ അത് നന്നായി തോന്നു അതുകൊണ്ട് എന്തായാലും അതിന് കോർഡിനേഷൻ എല്ലാം ഓക്കെയാണ് പുറത്തുള്ള വിദേശികൾക്ക് പക്ഷെ പരീക്ഷിക്കാവുന്ന ഒരിതാണ് അത്